എനിക്ക് സന്ദർശിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം കൈലാസ മാനസരോവർ യാത്രയാണ് കൈലാസം മാനസരോവറിൽ പോകുക എന്നുള്ളത് ഇറ്റ്സ് എ ലൈഫ് ലോങ്ങ് അംബീഷൻനാണ് എൻ്റെ അത് ശിവൻ്റെ യഥാർത്ഥ സ്ഥലം ആയതുകൊണ്ട് തന്നെ ശിവൻ്റെ ആ എന്താ പറയാ ആ മാഗ്നെറ്റിക് ഫെ എഫക്ട് ഉള്ള സ്ഥലം ആയതുകൊണ്ടന്നെ അവിടെ ദർശിക്കുന്നത് ഏറ്റവും പുണ്യം ആയിട്ട് ഞാൻ കരുതുന്നത്